വിദ്യാഭ്യാസ സംര ങ്ങളിൽ നഗരത്തെ അപേക്ഷിച്ച് ഗ്രാമത്തിന്റെ തോതു വളരെ കുറവായിരിക്കും എല്ലാ ടെക്നോളജികളും സൗകര്യങ്ങളും നഗരത്തിൽ അവൈലബിളായിരിക്കും പക്ഷെ നേരെ മറിച്ച് ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് ഇത്തരത്തിലുള്ള ടെക്നോളജിപരമായ ഗതാഗതപരമായ എല്ലാ കാര്യങ്ങളും പിന്നോട്ടായിരിക്കും ഇപ്പോള് ഇന്ത്യ എന്ന രാജത്തു നോക്കുകയാണെങ്കില് ഈ അതില് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കില് മറ്റുള്ള സംസ്ഥാനങ്ങളിൽനിന്നെല്ലാം കേരളം വ്യത്യസ്തമാകുന്നു കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടെക്നോളജികളും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യയില് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് ഈ വിദ്യാഭ്യാസപരമായ കാര്യങ്ങള് ഗ്രാമത്തില് വളരെ കുറവായിരിക്കും പ്രത്യേക പ്രത്യേകമായിട്ട് അവിടെയുള്ള കാര്യങ്ങളില് കുറവു വരുത്തുന്ന ഒന്നാമത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് അവിടുത്തെ ഗുണമേന്മയില്ലാത്ത തീരെ ഗുണമേന്മ ഇല്ലാത്ത അധ്യാപനങ്ങളായിരിക്കും അധികവും ഉണ്ടാവുക പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയായതു കൊണ്ടുതന്നെ ഇവിടേക്ക് നല്ല അധ്യാപകന്മാരെ വിടാതെ അതുപോലെ തന്നെ അധ്യാപകന്മാർക്കല്ലാം അത്തരത്തിലുള്ള ഗ്രാമങ്ങളിലേക്കു ചെന്നിറങ്ങാനുള്ള അവരുടെ മടിയും താല്പര്യക്കറവും ഇതെല്ലാം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരു ബാധകമായി ഒരു പ്രശ്നമായിട്ടു വരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഗതാഗത പ്രശ്നങ്ങള് ഗ്രാമീണ മേഖല ആകുമ്പോൾ വണ്ടി കുറവുണ്ടാകും ഇപ്പോള് കുട്ടികൾക്കുള്ള സൗകര്യങ്ങള് വണ്ടി സൗകര്യങ്ങള് എല്ലാം കുറവായതുകൊണ്ട് അവിടേക്കുള്ള ഗതാഗതം കുറവായതുകൊണ്ട് അവിടേക്ക് ആളുകള് കൂടുതൽ ആളുകള് അവിടേക്കു പോകില്ല അധ്യാപകന്മാർ തന്നെ അവിടേക്കു പോകാനുള്ള ഒരു താല്പര്യംകൂടെ കാണിക്കും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിലെല്ലാം ഇൻറ്റർനെറ്റ് ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങള് എത്താത്തതുകൊണ്ട് അവിടേക്ക് നിലവിലുള്ള കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചു ചലിക്കാത്ത ഒരുപാട് ടെക്നോളജികൾ അവിടെ എത്താത്തതു കൊണ്ടുതന്നെ കുട്ടികൾക്കും അതിനുപരി അധ്യാപകന്മാർക്കും അവിടേക്കു പോകാനും അവിടെനിന്നു പ്രവർത്തിക്കാനുള്ള താല്പര്യം ഉണ്ടാകില്ല അതുപോലെ തന്നെ ഗ്രാമങ്ങളില് പെൺകുട്ടികൾക്ക് അവരുടെ പ്രായമാകുമ്പോള് അവരെ കെട്ടിച്ചയയ്ക്കും ഗ്രാമങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും പക്ഷെ കേരള സാഹചര്യം നോക്കുകയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം കേരളം ഇതിനെല്ലാം മുന്നോട്ട് മുന്നിട്ടു നിൽക്കുന്നൊരു കാര്യം കാണാൻ സാധിക്കും കേരളത്തിലും കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള നല്ല മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു കേരളത്തിലെ ഗ്രാമീണ പ്രദേശങ്ങളില് നല്ല പ്രവർത്തനങ്ങളാണു കേരളം വിദ്യാഭ്യാസം നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പ്രവർത്തനങ്ങള് വരികയാണെങ്കില് ഒരു പദ്ധതികള് കൊണ്ടുവരികയാണെങ്കില് അവസാനമായിരിക്കും ഇത്തരത്തിലുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ എത്തുക ആദ്യം നഗരപ്രദേശങ്ങളിലായിരിക്കും അതിനെ അവര് അപ്ലൈ ചെയ്യുക ഇത്തരത്തിലൊരുപാട് പ്രശ്നങ്ങള് ഗ്രാമീണ വിദ്യാഭ്യാസം രീതികൾ ഗ്രാമീണ വിദ്യാഭ്യാസത്തിൽ നേരിടുന്നുണ്ട്